നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വച്ച് പറയുകയാണെങ്കിൽ കൂടുതലാൾക്കാരിലേക്കും നമുക്ക് പരസ്യങ്ങളിലൂടെയാണ് ആൾക്കാരെ എത്തിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ ആ ഇപ്പോൾ എല്ലാവരും ടി വിയും ആ അങ്ങനത്തെ കാര്യങ്ങളെയാണ് കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ അതിലൂടെ നമ്മൾക്ക് പരസ്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്താനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഏത് പരസ്യമാണെങ്കിലും ഇപ്പോൾ ഡ്രസ്സിൻ്റെ പരസ്യമാണെങ്കിലും എന്തിൻ്റെ പരസ്യമാണെങ്കിലും ഇപ്പോൾ നമുക്ക് ടി വിയിലൂടെയും മൊബൈലിലൂടെയൊക്കെ പരസ്യം കൊടുത്ത് കഴിഞ്ഞാലത് ആൾക്കാരിലേക്ക് നല്ല രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ അതിലൂടെ അത് വാങ്ങാനും ഇപ്പോൾ നല്ലൊരു സാധ്യതയാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സെലിബ്രറ്റീസിനെ വച്ചിട്ടൊക്കെയാണ് കൂടുതലാൾക്കാരും ഈ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ അതിനനുസരിച്ച് അതിൻ്റെ വിറ്റഴിക്കലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വളർന്ന് വരുന്ന ഒരു സാഹചര്യം ആണുള്ളത് അപ്പോൾ വളരെ നമുക്ക് കൂടുതലായിട്ടും അറിയപ്പെടുന്നുയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയിലും ഈ ഫോണിലൂടെയൊക്കെയാണ് പരസ്യം ചെയ്യുന്നതെന്നു വേണമെങ്കിൽ പറയാം